തീർച്ചയായും കായികരംഗത്ത് പ്രോത്സാഹിക്കപ്പെടണം അത്യാവശ്യമാണ് കാരണം അവരുടെ ഉന്നമനം നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിന് നമ്മുടെ ഗവൺമെൻറ് പ്രോത്സാഹിക്കപ്പെടണം അത് അത്യാവശ്യമാണ് അവർക്കതില് ആകർഷീയണീത ഉണ്ടാകണം കാരണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്കുവേണ്ട കാര്യങ്ങളെല്ലാം എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അവരെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടീട്ട് അവർക്ക് മുൻ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊടുത്ത് അവരെ നല്ലൊരു കായിക താരങ്ങളാക്കാനും യുവാക്കളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കയും ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത്